തീർച്ചയായും ബോളിവുഡ് അല്ലെങ്കിൽ ആ ബോളി വുഡിൽ ബോളിവുഡിലെ ആ ഫാഷൻ ട്രെൻറ്റുകൾ ആ നമ്മളെ എല്ലാവരേയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പുതിയ പുതിയ ഫാഷനും മറ്റ് കാര്യങ്ങളും നമ്മൾ ആ നമ്മൾ അപ്പ്റ്റുഡേറ്റാക്കുന്നത് അല്ലങ്കിൽ നമ്മൾ മാൾ നമ്മളറിയുന്നത് ഈ ഒരു സിനിമ രംഗത്തോടെയാണ് കാരണം ഓരോ പുതിയ സിനിമകളിലും ആ അവിടെ നായികാ നായകന്മാരല്ലങ്കിൽ അവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ പുതിയ പുതിയ വേഷത്തിലും ആണ് നമ്മുടെ മുന്നിൽ എത്താറുള്ളത് ആരും ഫാഷൻ ട്രെൻറ്റുകൾ അ തീർച്ചയായും നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരും സമൂഹത്തിലെ ജനങ്ങളും അത് തീർച്ചയായും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഓരോ സിനിമ അല്ലങ്കിൽ ഓരോ പരിപാടി വരുന്ന സമയത്ത് ഓരോ പുതിയ ട്രെൻറ്റുകളാണ് ഇറങ്ങുന്നത് ഞാനും ഈ ഒരു മാറുന്ന വസ്ത്രരീതിയെ ഞാനും ഇഷ്ടപ്പെടുന്നൊരാളാണ് കാരണം ഞാൻ കുറച്ച് കാലം മുന്നെ വരെ കുറച്ച് വസ്ത്രധാരണയിൽ ഞാൻ കുറച്ച് എന്താ പറയുക ശ്രദ്ധ നൽകിയിരുന്നു പക്ഷേ എന്നാൽ പോകെ പോകെ കുറച്ചും കൂടി നമ്മൾ അ വളർന്ന് വരുന്തോറും നമ്മളതിലോട്ടുള്ള ശ്രദ്ധ കുറച്ച് കൂടി ഒരുപാട് ഫാഷൻ ട്രെൻറ്റുകൾ നമ്മൾ പരീക്ഷിക്കുകയും ചെയ്യാറുണ്ട് ആ സിനിമയിലേയും അതുപോലെ സിനിമയിലെ കഥാപാത്രങ്ങൾ ഒരുപാട് ഫാഷൻ ട്രെന്റുകളെ ഫാഷൻ ട്രെൻറ്റുകൾ ആവുന്നതിൽ സിനിമയിലെ കഥാപാത്രങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട് അതിലെ കഥാപാത്രങ്ങളെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് സിനിമയിലെ പോലെ തന്നെ വസ്ത്രം സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനങ്ങനെ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്യാത്ത ആളാണ് എന്നാലും കുറച്ച് ഞാനും ശ്രമിച്ചു പക്ഷെ അത് ശരിയായില്ല എന്ന് വേണം തന്നെ പറയാം